മലയാള ഭാഷ ഭാഷാഭേദങ്ങൾ എന്ന് വെച്ചാൽ മലയാള ഭാഷാന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ് അതിപ്പോൾ എന്താ പറയാൻ നമുക്കേറ്റവും കൂടുതല് പഠിക്കാനും ടഫ്ഫുള്ള ലാംഗ്വേജ് മലയാളം തന്നെയാണ് എല്ലാ ലാംഗ്വേജ് വെച്ച് നോക്കുമ്പോൾ പഠിക്കാൻ കുറച്ച് ടഫ്ഫുള്ള ലാംഗ്വേജ് മലയാളം തന്നെയാണ് പിന്നെ മലയാള ഭാഷ ഭേദങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് മലയാളത്തില് കുറച്ച് ടഫ്ഫായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് അതില് കുറച്ച് ഈസി ആയിട്ടുള്ളത് അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഭാഷാഭേദങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ എന്താ പറയുക മലയാള ഭാഷ കുറച്ച് ഡിഫികൾട്ട് നമ്മടെ എന്താ പറയുക എല്ലാ ലാംഗ്വേജ് എടുത്തു നോക്കുവാണെങ്കിലും പഠിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമുള്ള ലാംഗ്വേജാണ് മലയാളം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമുക്ക് കുറെ ഭാഷഭേദങ്ങൾ അങ്ങനെ വരുന്നുണ്ട് അത് പഠിക്കാനും ഇതാ ഉപയോഗിക്കാനും ഒക്കെ നല്ല എളുപ്പമുള്ളതാണ് അതുപോലെ തന്നെ എന്ന് വെച്ചാൽ മലയാളത്തിന്റെ എന്താ പറയുക ഇപ്പം എവിടുന്ന് ഇപ്പോൾ പുറത്ത് നിന്ന് രാജ്യക്കാര് പുറത്ത് രാജ്യത്ത് നിന്ന് ആരെങ്കിലും വന്നാലും പിന്നെ ഒരാൾ അറിയാത്തവരൊക്കെ വരുമ്പോൾ തന്നെ എന്താ പറയുക നമ്മള് പറയുന്ന അത്ര ഫ്രീ ആയിട്ട് അവര് പറയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് നല്ല നല്ല ഭാഷ ഭേദങ്ങളൊക്കെ മലയാളത്തിലുണ്ട്